നമ്മുടേ നാട്ടിലിന്ന് ഏറ്റവും വലിയ ഒരു പ്രതിസന്ധി നമ്മൾ നേരിടണേല് വലിയ ഏറ്റവും വലിയൊരു പ്രതിസന്ധി എന്താന്നു വെച്ചാൽ യുവാക്കളിലുള്ള തൊഴിലില്ലായ്മ തന്നെയാണ് ഏറ്റവും വലിയ പ്രതിസന്ധി അപ്പോൾ ഇതിൽ പ്രധാനമായിട്ടും കാരണമെന്താ വെച്ചാൽ ഞമ്മളെ കേരളത്തെ സംബന്ധിച്ച് നമ്മളെ കേരളത്തിൽ മറ്റുള്ള സംസ്ഥാനങ്ങളെ ഡിപ്പെൻഡ് ചെയ്തും ഒരുപാട് എന്താ വ്യാവസായിക സംരഭങ്ങളൊക്കെ കുറവാണ് പിന്നെന്താ വെച്ചാൽ നമ്മളെ നാട്ടിലുള്ള ഒരു സരംഭകനെ ഉയർത്തിക്കൊണ്ടു വരാനുള്ള ഒരു ബുദ്ധിമുട്ടുകൾ അങ്ങനത്തെ പല കാര്യ കാരണങ്ങളാലും നമ്മളുടെ നാട്ടിൽ തൊഴിലവസരങ്ങൾ ലഭിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് പിന്നെ മറ്റൊരു കാരണമെന്താ എന്നു വെച്ചാൽ തൊഴിലിൻ്റെ ഒരു എന്താപറയുക ഇപ്പോൾ മറ്റുള്ള ആൾക്കാർ അതായത് ഇപ്പോൾ ഒരു എല്ലാവരും വിദ്യാസമ്പന്നരായിട്ടുള്ളൊരവസ്ഥയാണ് അതായത് ഡിഗ്രി ഇല്ലാത്തവരും പീ ജി യില്ലാത്തവരും ആൾക്കാർ ഒരു നൂറ് ആൾക്കാരെ എടുത്തു കഴിഞ്ഞാൽ ഒരു എൺപത് ആൾക്കാരും ഡിഗ്രിയുള്ള ആൾക്കാരാ അതുകൊണ്ട് ഡിഗ്രിയുള്ള ആൾക്കാർക്ക് മറ്റുള്ള ജോലികൾ ചെയ്യാനുള്ളൊരു മടി ഇതൊക്കെന്തു ചെയ്യും ഈ തൊഴിലില്ലായ്മേനെ ബാധിക്കുന്നുണ്ട് അതുകൊണ്ടു തന്നെ ഞമ്മളെ നാട്ടിൽ ഇപ്പോൾ യുവത്വമല്ല യുവത്വങ്ങളൊക്കെന്താണ് മറ്റുള്ള നാടുകളിൽ പോയിട്ട് മറ്റുള്ള രാജ്യങ്ങളിലൊക്കെ പോയിട്ട് അവിടെയെന്തു ജോലി ചെയ്യാനും അവർ തയ്യാറാണ് പിന്നൊരു മറ്റൊരു തൊഴിലില്ലായ്മേൻ്റെ ഒരിത് വേതനമാണ് നമ്മളുടെ നാട്ടിൽ എത്ര വലിയ ജോലി പഠിച്ചിറങ്ങിയാലും എത്ര വലിയ മാർക്കിൽ പഠിച്ചിറങ്ങിയാലും നമ്മളുടെ നാട്ടിൽ ജോലി കിട്ടിക്കഴിഞ്ഞാലെന്താണ് ശമ്പളമല്ല അപ്പോൾ നമ്മളെന്തു ചെയ്യും നമ്മുടെ ഒരു എന്താ കോളിറ്റിക്കും കോൻഡിറ്റിക്കും അനുസരിച്ചുള്ളൊരു വർത്ത് അല്ലെങ്കിൽ ആ ഒരു എമൌണ്ട് കിട്ടണ എവിടെയാണോ അവിടേക്ക് നമ്മളെന്തു ചെയ്യും നമ്മൽ ഷിഫ്റ്റ് ചെയ്യും ഇതൊക്കെ തന്നെയാണ് നമ്മളുടെ നാട്ടിൽ നേരിടുന്ന പ്രധാനപ്പെട്ട വെല്ലുവിളികൾ തൊഴിലവസരങ്ങളിലുള്ള